ആ അതില്ലേ ഇന്നലെ ഞാൻ ഇങ്ങനെ എങ്ങനെ ഇതൊക്കെ ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബാങ്കിന്ന് ഒരു സന്ദേശം വരുന്നു നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ആധാർ കാർഡും ആയിട്ട് ലിങ്ക് ചെയ്യണമെന്ന് അപ്പം അങ്ങനെ ചെയ്തത് കൊണ്ടന്നെ നമുക്ക് സബ്സിഡി ഒക്കെ പെയ്മെന്റ് ഒക്കെ കിട്ടുന്നത് ഇപ്പം അവർ പറയുന്നത് അത് ബന്ധിപ്പിക്കണം ആധാര് കാര്ഡും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കണമെന്ന് അപ്പം നമുക്ക് സബ്സിഡി കിട്ടുന്നത് നമുക്ക് ഒത്തിരി നല്ലതാണ് സബ്സിഡി കിട്ടുന്നോണ്ട് നമുക്ക് പല ചിലവുകള്ക്കും അതിന്റെ എക്സ്പെന്സ് ഒക്കെ കുറവായിരിക്കൂലോ സബ്സിഡി കൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നു